ഹലോ ആ ചേട്ടാ എന്തൊക്കെ ഉണ്ട് കച്ചവടം ഒക്കെ എങ്ങനെ പോവുന്നു ആ സുഖം ഞാനിന്ന് എനിക്കൊരു വീട്ടിലാൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് എന്താ പറയുക വീട്ടിലത്തെ മകളുടെ ഫ്രണ്ട്സ് ഒക്കെ വരണുണ്ട് അപ്പം കുറച്ച് അധികം പച്ചക്കറി വേണം എനിക്ക് അതുകൊണ്ട് ഒരു എങ്ങനെ ഉണ്ട് ഇപ്പോൾ പച്ചക്കറിയുടെ വില ഒക്കെ നല്ലതാണോ ഭയങ്കര കൂടുതലാണോ ആണോ അപ്പോൾ കച്ചവടം ഒക്കെ കുറവാണോ അതോ നഷ്ടത്തിലാണോ ആ ആ ആ എനിക്ക് എനിക്കെന്നാൽ ഒരു ഒരു കിലോ വെണ്ടക്കയും ഒരു അരക്കിലോ വഴുതനങ്ങ അതൊക്കെ എടുത്തോളൂ പിന്നെ ഒരു രണ്ടു കിലോ ഉള്ളി വേണം പിന്നെ വെളുത്തുള്ളി ഒരു നൂറു ഗ്രാം എന്തായാലും എടുക്കൂ എടുക്കുമ്പോഴേക്കും ഞാൻ ബാക്കി പറയാം പിന്നേ വീട്ടിൽ മകളെന്താ ചെയ്യുന്നത് ഇപ്പോൾ മകളെവിടെയാണ് പഠിക്കുന്നത് ആണോ എന്തായിരുന്നു കോഴ്സ് ഇപ്പോൾ പ്ലസ്ടു ആണോ അതോ പ്ലസ്ടു ആണ് ഓക്കേ ഏതായിരുന്നു സബ്ജെക്ട് ആ ഓക്കേ കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ട് ഇപ്പോൾ എന്താണ് കുട്ടിയുടെ ആഗ്രഹം ഇനിയിപ്പോൾ എന്തു ചെയ്യാനാണ് എഞ്ചിനിയറിംഗ് വല്ലതുമാണോ നോക്കുന്നത് കുട്ടി അതോ ഇനിയിപ്പോൾ വേറെയെന്തെങ്കിലും ആണോ ആ ഓക്കെ ഹാ പിന്നെ എങ്കിൽ ആ എന്തൊക്കെ എടുത്തു ഇപ്പോൾ ഒരു കിലോ വെണ്ടയ്ക്ക രണ്ടു കിലോ ഉള്ളി പിന്നെ നൂറു ഗ്രാം വെളുത്തുള്ളി ഒരു നൂറു ഗ്രാം പച്ചമുളകും കൂടി എടുത്തോളൂ ഹലോ ചേച്ചി എവിടെ ചേച്ചീനെ കണ്ടില്ലല്ലോ ചേച്ചി ഉണ്ടാവാറുണ്ടല്ലോ പിന്നെ ഇനി വെളിച്ചെണ്ണ വേണമായിരുന്നു ഒരു ഒരു ലിറ്ററ് വെളിച്ചെണ്ണ വേണം പിന്നൊരു പത്ത് ആ ഒരു പത്ത് മുട്ട കൂടി എടുത്തോളു ആ പിന്നെ എനിയിപ്പോൾ എനീ ആ ഇപ്പോൾ അവർക്കു ചായയ്ക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ ബിസ്ക്കറ്റ്സ് ഉണ്ടോ ഏത് ബിസ്ക്കറ്റാണ് ഉള്ളത് മാരിഗോൾഡ് മാരിഗോൾഡിന്റെ ഒരു രണ്ടു പാക്കറ്റ് എടുത്തോളൂ പിന്നെ റെസ്ക്ക് ഒരു ഒരു പാക്കറ്റ് എടുത്തോളൂ മകളിപ്പോൾ പ്ലസ്ടൂവിൽ അപ്പോൾ മകനെന്താ ചെയ്യുന്നത്

ആ ഏതാണ് സ്കൂള് നമ്മുടെ അവിടെ ഇ വി എച്ച് എസ് എസ്സ് തന്നെയാണോ അതോ ആ സി ബി എസ് സിയിൽ നിന്നും മാറിയല്ലേ ഇങ്ങോട്ട് ആ ഓക്കേ നല്ല പൈസയാണല്ലെ മുതലാവില്ല വീട്ടിലിവിടെ എങ്ങനെയുണ്ട് ആ വീട്ടിലും കുഴപ്പമില്ല അങ്ങനെ പോകണു ഇപ്പോഴെന്താ മകളിപ്പം എഞ്ചിനിയറിംഗ് ഇപ്പോൾ ലാസ്റ്റ് ഇയറായി ഇപ്പം ക്യാംപസ് പ്ലേസ്മെന്റൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചേർന്നത് അറിയില്ല പിന്നെ നല്ല ഫീ ഒക്കെ ആയിട്ടും കുഴപ്പമില്ല പിന്നെ ഇപ്പോൾ ഏട്ടൻ അധികം പണിയൊന്നുമില്ലാത്തതുകൊണ്ട് പൈസയും കുറവാണ് അങ്ങനെ ആ അങ്ങനെയൊക്കെ സാധാരണ പോലെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ അറിഞ്ഞോ ഒരു കാര്യം

അതൊന്നും കുഴപ്പമില്ല മെഡിക്കൽ കോളേജിലായിരുന്നു ഒരു പത്തു ദിവസം മുന്നെയാണ് വന്നത് ഇപ്പം വീട്ടിൽ കിടപ്പിലാണ്

ആ മറ്റെ പറ്റ് ബുക്ക് ആ പറ്റ് ബുക്കിൽ ഓൾറെഡി കുറച്ച് കണക്കുണ്ടല്ലോ അപ്പോൾ എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് തരാമെന്നാണ് വിചാരിച്ചത് ഇപ്പോൾ എത്ര രൂപയായി എല്ലാം കൂടി കൂട്ടിയിട്ട് നാലായിരത്തി അഞ്ഞൂറ് ഇപ്പോൾ ആ എല്ലാം കൂടി കൂട്ടിയിട്ട് എത്രയാണെന്നാണ് പറഞ്ഞത് കൂട്ടിയിട്ട് പറഞ്ഞാൽ മതി ഞാൻ വെയിറ്റ് ചെയ്യാം കുഴപ്പമില്ല